ആൾക്കാർ വരുന്ന സമയത്ത് കാണാൻ പറ്റിയ സ്ഥലമാണ് ഈ പാലക്കാടെന്ന് പറയാ ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു വിനോദ കേന്ദ്രാണ് ധോണി വാട്ടർ ഫാൾസെന്ന് പറയുന്നത് കാട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും കാട്ടിൽ കൂടെ നമ്മൾ പോയിട്ട് അവിടെ എന്താണ് വലിയ വലിയൊരു കുന്നൊക്കെ ഉണ്ട് അപ്പം അവടെ കുറേ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും ആന നമ്മൾ മൃഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോകണം എന്നിരുന്നാൽ കൂടി നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മളവിടെ അവിടെ ടോപ്പെത്തുന്ന സമയത്ത് നമുക്ക് കുറേ എന്താ പറയുക വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ കുന്നിലോട്ട് ഇങ്ങനെ ഒഴുകി വരുകയാണ് അപ്പം ആ വെള്ളത്തിലക്കെ നമുക്ക് കളിക്കാം അതിന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ എത്തുമ്പോൾ അവിടെ ഒരു എന്താ പറയുക പാറ പാറ കാണും കുറേ ലോറിയുടെ ആകൃതിലൊരു പാറ കാണും ദേവിയുടെ ആകൃതിൽ ദേവിയുടെ കയ്യൊക്കെ പതിഞ്ഞ അടയാളമൊക്കെ അവിടെ കാണും ഇതൊക്കെ പണ്ടത്തെ ഐതീഹ്യങ്ങളാണ് അപ്പം അങ്ങനെ കുറേ പുരാണപരമായിട്ടുള്ള ഐതിഹ്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കാട്ടിൽ കൂടൊക്കെ പോകണ സമയത്ത് വന്യ മൃഗങ്ങളെ സൂക്ഷിക്കാനാണവർ നിർദ്ദേശങ്ങൾ അപ്പം ആ നിർദ്ദേശമൊക്കെ അനുസരിച്ച് പാലിച്ചിട്ട് മുന്നോട്ട് പോകുവാണ് നമ്മൾ എപ്പോഴും അവരെന്താണോ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നോക്കീട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പോൾ അവിടെ അങ്ങനെ കുറേ ഇതൊക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കാരണം ഇതൊന്നും വേറെ എവിടെയും കാണാൻ പറ്റില്ല കാട്ടിൽ കൂടെ നമുക്ക് ഒരു അഞ്ച് കിലോമീറ്ററോളം മുന്നോട്ട് നടന്ന് പോകുക നമ്മൾ ലൈവായിട്ട് നമുക്ക് മൃഗങ്ങളെ ഒക്കെ കാണാൻ പറ്റുകായെന്ന് ഒക്കെ പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറേ കഴിഞ്ഞ സമയത്ത് നമുക്ക് അവിടെ മുകളിലൊരു സാ കുഞ്ഞു കടയൊക്കെ ഉണ്ട് ആ കടേന്ന് നമുക്ക് ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ടൊക്കെ പോകാം മുള കൊണ്ടുള്ള കുറേ വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഏറുമാടങ്ങൾ കെട്ടിയിട്ടുണ്ട് പണ്ട് ബ്രിട്ടീഷ്കാർ പണിതെന്ന് പറയുന്നൊരു കൊട്ടാരമൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് അവർ പറയണേ അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പൊയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല രസമാണ് അതൊക്കെ ആൾക്കാരെ ആകർഷിക്കാൻ ഒരുപാട് ആൾക്കാർ കാണാൻ വരാറുണ്ട് ഇതൊക്കെ രാവിലെ മുതലെ ആൾക്കാർ വന്ന് കാണാൻ വരാറുണ്ട് അപ്പോൾ നല്ല സ്ഥലമാണ് നമുക്ക് ഒന്നിനും അവിടെ ഒരു കുറവ് ഉണ്ടാവില്ല അതും നമുക്ക് കുറഞ്ഞ വില കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനുള്ളിൽ കാണാൻ പറ്റും